ആ ഓക്കേ പറഞ്ഞോളു

ആ അപ്പം കേരളത്തിൽ ഫേമസ് ആയിട്ടുള്ളത് ആലപ്പുഴയുണ്ട് കൊച്ചിയുണ്ട് കോഴിക്കോട് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് ഉള്ളത് ആ അപ്പം നിങ്ങൾക്ക് എന്ത് ഫു എ സീ ഫുഡ് മാത്രം മതിയോ ആ ഇപ്പം കൊച്ചിയില് മെയിനായിട്ടുള്ളത് ഏ എന്താ പറയുക പ്രോൺസ് കല്ലുമ്മക്കായ് അങ്ങനെ സംഭവങ്ങളൊക്കെയാണ് കരിമീൻ പൊള്ളിച്ചത് അങ്ങൻത്തെ കരിമീൻ്റെ വെറൈറ്റി അങ്ങനെയാണുള്ളത് ആ ഇപ്പം ആ പ്രോൺസാണെങ്കിൽ തന്നെ എന്താ പറയുക നമ്മൾ ലൈവ് ഫിഷിങ്ങുണ്ട് കൊച്ചിയിൽ ലൈവ് ഫിഷിങ്ങുണ്ട് നമുക്കിപ്പം ഡയറക്ട് നമ്മളെന്ത് ഫിഷാണോ വേണ്ടത് അത് പറഞ്ഞാൽ അത് പിടിച്ച് അത് കറി വെച്ച് തരും അങ്ങനെയാണ് അങ്ങനെ സ്പോട്ടുണ്ട് കൊച്ചിയില് പിന്നെ ക്രാബുണ്ട് ആ പിന്നെന്താണ് വെച്ച് കഴിഞ്ഞാല് ആവോലി നത്തോലി അങ്ങനത്തെ ചെറിയ ചെറിയ മീനില്ലേ അങ്ങനത്തെ മീനുണ്ട് ഇപ്പം വലിയതാണെങ്കിൽ ട്യൂണാ ഫിഷൊര് ഇമ്പോർട്ടഡ് ഫിഷ്ണ്ട് ട്യൂണാ ഫിഷ് നമ്മുടെ ഇവിടെ കിട്ടില്ല പുറത്തേതാണ് ഇമ്പോർട്ടഡ് ഫിഷിൻ്റെ ഇതും ഉണ്ട് കെട്ടോ

ആ ഇല്ല ബുക്ക് ചെയ്യണ്ട ആവശ്യമില്ല ട്യൂണാ ഫീഷൊക്കെയാണെങ്കിൽ ബുക്ക് ചെയ്യേണ്ടി വരും ബാക്കിയുള്ള നോർമൽ ഫിഷ് എന്തെങ്കിലുമാണ് ബുക്ക് ചെയ്യണ്ട ആവശ്യമില്ല കാരണം കടലിൻറ്റ അടുത്ത് തന്നെ ആയതുകൊണ്ട് എന്താ പറയുക റിസോർട്ടിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും എല്ലാം ഉണ്ടാവുക അപ്പം നിങ്ങള് ഒരു അപ്പോൾ വരുന്ന മുൻപ് ഒരു മണിക്കൂർ മുമ്പ് പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ചെയ്ത് തരാൻ പറ്റുകയുള്ളു ആ മീന് കൊച്ചി ആലപ്പുഴയാണ് ആലപ്പുഴയാണെൽ ബോട്ടിങ്ങുണ്ട് ഹൗസ് ബോട്ടി ഹൗസ് ബോട്ടിൽ അങ്ങനെയൊക്കെയുണ്ട് സൗകര്യങ്ങള് അപ്പോൾ അതിൻറ്റുള്ളിൽ തന്നെ കുക്കിങ്ങും ആ സംഭവമക്കെയുണ്ട് ആ ആലപ്പുഴ അൽ ആ എല്ലാ സ്ഥലത്തും എല്ലാ ഉണ്ട് പക്ഷേ സീ പു സീ ഫുഡ് സ്പെഷ്യാൽറ്റീസ് ഇതൊക്കെയാണുള്ളത് നോർമൽ ഫുഡ്ഡും ഉണ്ട് കെട്ടോ മെയിൻലി അറേബ്യൻ ഫുഡ്സൊക്കെയുണ്ട് ആ താമസവും ഡ്രൈവിങ്ങും അങ്ങനത്തെയുള്ള എല്ലാം ഉണ്ട് ക്യാബിനും എല്ലാം ഉണ്ട് ഇപ്പം റെൻ ആ ഓക്കേ ആ നമ്മുടെ ഇപ്പം ഇപ്പം നമ്മുടെ റിസോർട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് കൊച്ചിയിലെ റിസോർട്ടും ആലപ്പുഴ റിസോർട്ടും നമ്മുടെ സെയിം റിസോർട്ടാണ് ഇവിടേന്ന് വെച്ച് കഴിഞ്ഞാല് ചിൽഡ്രൻസ് പാർക്കുണ്ട് അതുപോലെ തന്നെ ക്യാബിനുണ്ട് അതുപോലെ തന്നെ റെൻറ്റഡ് ആയിട്ടുള്ള ബൈ സൈക്കിളും അതേപോലെ തന്നെ ടു വീലറും ഫോർ വീലറൊക്കെയുണ്ട് ആണോ ആ ഓക്കേ ഇപ്പം നിങ്ങള് ഞാനേ ഇപ്പം നിങ്ങളുടെ സീറ്റ് ബ്ലോക്ക് ചെയ്തിടണ്ട വരും ആ എന്നാൽ നമുക്കിപ്പോൾ എത്ര റൂമോ ഒരു റൂമ് മതിയായിരിക്കുമോ ആ അപ്പം നമുക്ക് രണ്ട് റൂമ് ബ്ലോക്ക് ചെയ്തിടാം ബ്ലോക്ക് ചെയ്യാനൊള്ള എമൗണ്ട് നിങ്ങളെന്തായാലും ഗൂഗിൾ പേ ചെയ്യേണ്ട വരുവായിരിക്കും ആ ഈ നമ്പറില് ഗൂഗിൾ പേ ചെയ്താൽ മതി ഞാനെ വേണമെങ്കിൽ ഇവിടുത്തെ ഡീറ്റെയിൽസും മെനു കാർഡ് ആ ഇവിടുത്തെ ഡീറ്റെയിൽസും മെനു കാർഡൊക്കെ വേണേൽ ഞാനീ നമ്പറില് ഗൂഗിൾ പേ ചെയ്യാം വാട്സ്അപ്പ് ചെയ്യാം